മെയ് ഐ കം ഇൻ മാം ഗുഡ് മോർണിംഗ് മാം താങ്ക്യൂ മാം ആര്യ എന്നാണ് ഞാൻ രാജധാനി കോളേജിലാണ് മാം പഠിച്ചത് മങ്കര പാലക്കാട് യാ മാം എനിക്ക് ചെറുപ്പം മുതൽ കംപ്യൂട്ടറെന്നൊക്കെ കേൾക്കുന്നത് വളരെ ഇഷ്ടമായിരുന്നു ചെറുപ്പംതൊട്ടേ കംപ്യൂട്ടറിനോട് ഒരു ഇഷ്ടമുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ സിഎസ് എടുക്കാമെന്ന് വിചാരിച്ചത് സത്യം പറഞ്ഞാൽ ഇഷ്ടത്തോടെ എടുത്തോണ്ട് എനിക്കത്രക്കും ബുദ്ധിമുട്ട് തോന്നിയില്ല പഠിക്കാനൊക്ക വളരെ ടഫായിരുന്നു എന്നാലും ഇഷ്ടായതുകൊണ്ട് ഞാൻ നല്ലരീതിയിൽ തന്നേ മാക്സിമം നന്നായി പഠിച്ചു പാസ്സായി എല്ലാ സബ്ജക്ടും കെ ടി യു മാം എളുപ്പം ആ കുഴപ്പമില്ല ടഫുണ്ടായിരുന്നു ചിലതൊക്കെ എളുപ്പമായിരുന്നു ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു രണ്ടെണ്ണം ഉണ്ടായിരുന്നു അതൊക്കെ ക്ലിയർ ചെയ്തു എനിക്ക് ഇപ്പോൾ എനിക്ക് സി അറിയാം ജാവയറിയാം പൈതണറിയാം പിന്നേ സിപ്ലസ്പ്ലസ് അറിയാം എനിക്ക് സി ആണ് മാം അറിയാ സി ആണെനിക്ക് എളുപ്പം അത് ഫസ്റ്റ് സി ആണ് മാം ഞാനാദ്യമായിട്ട് പഠിച്ചത് പ്ലസ്ടുവിൽ സി പ്ലസ്പ്ലസ് ആയിരുന്നു പിന്നേ നമ്മൾ ചേർന്നിട്ട് കോളേജിൽ ചേർന്നിട്ട് ആദ്യം പഠിച്ചത് സി ആണ് അപ്പം അത് ആദ്യം വന്നപ്പോൾ അതാണ് ടഫെന്ന് വിചാരിച്ചു പക്ഷേ അതുകഴിഞ്ഞു ജാവയും ബാക്കിയുള്ള പ്രോഗ്രാംസും പ്രോഗ്രാമിംഗ് ലാൻഗ്വേജൊക്കെ പഠിച്ച ശേഷം ആ അതുവെച്ച് കംപേർ ചെയ്യുമ്പോൾ എനിക്ക് സി ആണ് കുറച്ചും കൂടി എനിക്ക് എളുപ്പമായിട്ടു തോന്നിയത് പേഴ്സണലി എനിക്ക് എളുപ്പം എനിക്ക് പഠിക്കാൻ പറ്റും അല്ലെങ്കിൽ എന്നെ കൊണ്ട് കുടുതലായിട്ടു നന്നായി ചെയ്യാൻ പറ്റുമെന്ന് തോന്നിയത് സി ആണ് അതെയതെ ആ എനിക്ക് എൻ്റെ ഒരു കോളേജിൽ പഠിക്കുമ്പോൾ തന്നെ രണ്ടുമൂന്നു കമ്പനിയിൽ എങ്ങനേങ്കിലും ജോലി ഏതേ മൂന്ന് കമ്പനിയായിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് അതിലേതെങ്കിലും ഒരു കമ്പനികളിൽ ജോലി വാങ്ങണം എന്നായിരുന്നു ആഗ്രഹം അപ്പം ആ മൂന്ന് കമ്പനികളിൽ ഒരു കമ്പനിയാണ് അപ്പം നിങ്ങളുടെ കമ്പനിയെന്നു പറയുന്നത് അപ്പം എല്ലാവർക്കും നല്ല അഭിപ്രായം മാത്രമാണ് ഉള്ളതിപ്പോൾ അവിടുത്തെ സ്റ്റാഫിനാണെങ്കിലും നല്ലൊരു രീതിയിലാണ് നല്ല രീതിയിലാണ് അവർക്കു വർക്ക് ചെയ്യാൻ പറ്റുന്നത് നാല്ലൊരു അറ്റ്മോസ്ഫിയർ ആണെന്നാണ് വേറെ അവിടത്തെ സ്റ്റാഫുകളൊക്കെ എനിക്ക് പരിചയുള്ള സ്റ്റാഫുകളൊക്കെ പറഞ്ഞ് പറഞ്ഞു തന്നിട്ടുള്ളത് അപ്പോൾ ഒന്നുംകൂടി കൂടുതലായിട്ട് നിങ്ങളുടെ കമ്പനി കമ്പനിയിൽ ജോലി ചെയ്യണമെന്നാണ് എനിക്ക് ആഗ്രഹം ഇണ്ടായിരുന്നത് അപ്പോൾ ഇങ്ങനെയൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയപ്പോൾ ഞാനത് ആ ഒരവസരം നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തണമെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു ഇൻറ്റർവ്യൂന് വന്നത് ഉം ഉം ഓക്കെ മാം താങ്ക്യൂ മാം താങ്ക്യൂ മാം താങ്ക്യൂ ഓക്കെ മാം താങ്ക്യൂ മാം താങ്ക്യൂ